ഹലോ എന്തുണ്ട് വിശേഷമൊക്കെ ആ ഇന്നലത്തെ കളി കണ്ടായിരുന്നുവോ ആ അതിന്റെയിടയ്ക്ക് അവന്മാരുടെ കുറേ മണ്ടത്തരവുമുണ്ടായിരുന്നു അതാണ് സഹിക്കാൻ വയ്യാഞ്ഞത് അതേ ഡിഫെൻസ്സ് നില്ക്കേണ്ടയിടത്ത് ഗോളടിക്കാനുള്ള ആക്രാന്തം മൂലം ഡിഫെൻസുള്ളവന്മാരെല്ലാം കൂടെ ഓടി അങ്ങോട്ടോടി ഈയ്യോ ബ്ലാസ്റ്റേഴ്സ്സ് വെറുതെയല്ല ബ്ലാസ്റ്റേഴ്സ്സ് പച്ച പിടിക്കാത്തത് ഓഹ്ഹ് ഓഹ് എൻ്റെ പൊന്നേ അടുത്തകളി നോക്കാം അല്ലാതെ ഇനിയിപ്പോള് ഇവന്മാരൊക്കെ ഇനിയിപ്പം വേൾഡ് കപ്പിന് ഏതുകാലത്തിറങ്ങുമോ കാരണം ഇതുപോലെയൊക്കെ കളിക്കാന് പോയിക്കഴിഞ്ഞാല് ഹിയ്യോ അതും നല്ല പൊട്ട ടീമായിരുന്നു ഓപ്പോസിറ്റുണ്ടായിരുന്നത് അവന്മാര് അതും ഓഹ് ഇത് ചെയ്തു എന്ത് കളിയാണോ അവരൊക്കെ ആണെന്ന് വലിയ ഒരു ആദ്യത്തെ ഒരു ഗോളടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനോർത്തു അങ്ങ് കയറി വരുമായിരിക്കുമെന്ന് പക്ഷേ ഒരു കാര്യവുമുണ്ടായില്ല പിന്നെ നമ്മുടെ മെസ്സിയുടെ കളി കണ്ടായിരുന്നുവോ വേൾഡ് കപ്പ് അതുപിന്നെ ആ പുള്ളി പിന്നെ മാസ്സാണ് കേട്ടോ ആഹ് അയ്യോ അയ്യോ അന്ന് കാണണമായിരുന്നു ഇന്നലെയൊക്കെ കാറലും കൂവലും ഹോ ആ ആദ്യം ഓർത്തു ദൈവമേ തീർന്നു തീർന്നു എമ്പാവ കൊണ്ടുപോയെന്നൊക്കെയാണ് ഓർത്തത് പക്ഷേ നമ്മുടെ മെസ്സിയണ്ണൻ പൊളി തിരിച്ചുകയറി ബാക്കപ്പ്

ആ പുള്ളി മെസ്സിയില്ലായിരുന്നുവെങ്കില് സത്യം പറഞ്ഞാല് മെസ്സിയുടെ ടാക്കിളും സെൻ്റർ ഷൂട്ടുമില്ലായിരുന്നുവെങ്കില് ഹോ ടീം തീരുമാനമായേനെ എൻ്റെ പൊന്നേ ആ ഓപ്പോസിറ്റ് വന്നവൻ ചുമ്മാ തുടങ്ങുന്നതിന് മുന്നേ കിടക്കുകയാണ് പരിപാടിയായിരുന്നു ഒരുമാതിരി ആ എന്തായാലും കപ്പ് കൊണ്ടുപോയില്ലേ നമ്മള് അർജൻറീനയാണ് അറിയാമല്ലോ ആ പിന്നെ ബ്രസീലിപ്പോള് കൊണ്ടുപോകും മെസ്സിയുള്ളയിടത്തോളം കാലം ഒരു ബ്രസീലും കൊണ്ടുപോകുകയില്ല ഒരു കപ്പും കൊണ്ടുപോകുകയില്ല ആ എന്ത് തൊട്ടാല് ഉടനേ വീഴാന് കിടക്കുന്നതിനാണോ ഈ നെയ്മറണ്ണൻ ഇപ്പോള് ഇങ്ങിറങ്ങാന് പോകുന്നത് കണ്ടാലും മതി ഈ പ്രാവശ്യത്തെ കപ്പ് കൊണ്ടുപോയി അടുത്ത പ്രാവശ്യത്തെയും കൊണ്ടുപോകും ഇപ്പോള് മെസ്സിയുടെയത്രയും ടാക്ക്ലിങ്ങും ഇതോന്നുമൊന്നും കാണില്ല അവന്മാരെല്ലാം ഇങ്ങനെ വട്ടത്തില് നിന്ന് ഒരുമാതിരി ഫ്യൂസ് പോയതുപോലെ നില്ക്കുന്നത് കണ്ടായിരുന്നുവോ നീ ഗോളടിച്ച് കഴിഞ്ഞപ്പോള് ബോളെടുത്ത് കൊണ്ടുപോയെന്ന് അതെ അതെ കഴിഞ്ഞ ബ്രസീല് ബ്രസീല് ബ്രസീല് പിന്നെ എന്തായിരുന്നു ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിന് എവിടെയാണ് പത്താമതോ ആറാമതോ അതും വെറും വെറും വെറും പൊട്ട ടീമല്ലേ മറ്റേ ലണ്ടൻ വന്നിട്ടല്ലേ ചുമ്മാ വന്ന് തോണ്ടിയിട്ട് അഞ്ച് ഗോളുമടിച്ച് ഒരു ഗോളുപോലും അടിക്കാന് വയ്യാതെ അവിടെ നിന്ന് ഓ പിന്നെ ചക്കയും മുയലും അതാണല്ലോടാ നാല് മൂന്നിന് തോറ്റത് ഛേ ജയിച്ചത് ഹാ നീ നീ നീ ഇതൊരു രണ്ടുമൂന്ന് വർഷമായിട്ട് പറയുകയാണ് നിൻ്റെ ബ്രസീല് എന്നെങ്കിലും ജയിച്ചെന്ന് അറിഞ്ഞിട്ട് ചാകാന് പറ്റുമോ ഞാന് ഇപ്പോള് കളിക്കാൻ ഇന്നിപ്പം ഇന്നില്ലടാ നാളെ ഇറങ്ങാം കാരണം ഇന്നിത്തിരി വീട്ടിലിത്തിരി പരിപാടിയുണ്ട് നാളെ എന്തായാലും രാവിലെ തന്നെയങ്ങ് ഇറങ്ങിയേക്കാം പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ നമുക്ക് മറ്റേ നമ്മുടെ പറമ്പില് കളിക്കാം ആ ഞാനിന്ന് ഇന്നുംകൂടെ ഇത്തിരി പരിപാടിയുണ്ട് നമുക്ക് നാളെ തൊട്ടങ്ങ് ഇറങ്ങാം നമ്മള് മെസ്സിയുടെ ടാക്ലിങ് സ്കില്സ് എടുക്കാന് പോകുകയാണ് മ്മ് കണ്ടാലും മതി നീയും അതേപോലെ മറ്റേ നെയ്മറിനെ പോലെ തൊടുമ്പോള് അയ്യോ കാല് പോയേ കൈ പോയേയെന്നും പറഞ്ഞ് കാറാനല്ലേ മ്മ് എന്നാല് ശരി കാണാം എന്നാല് ശരി